വീഡിയോ ഗെയിമെന്ന് പറയുമ്പോൾ പല വിഡിയോ ഗെയിംസും ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിളാണ് നമ്മൾക്ക് ചിലവര് എൻ്റർറ്റെൻമെന്റ് ആയിട്ട് ചെയ്യുന്ന അതിനുവേണ്ടിയിട്ടാണ് വീഡിയോ ഗെയിംസ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എന്തു കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ടൈം പോവാനും വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ കളിക്കാനും അതുപോലെത്തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഗെയിംസ് യൂസ് ചെയ്യുന്നത് ഞാൻ കളിച്ചിട്ടുള്ളത് ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ട് പബ്ജി കളിച്ചിട്ടുണ്ട് പെസ്സ് കളിച്ചിട്ടുണ്ട് പിന്നെ സ്കോർ ഹീറോ പിന്നെ ഈ പാർക്കിങ്ങ് ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് നല്ല രസമാണ് കളിക്കാൻ പെട്ടെന്ന് സമയം പോകണതറിയില്ല അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യുന്നത് അവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ടൈം എൻജോയ് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നെ പല ടൈപ്പ് ഓഫ് വീഡിയോ ഗെയിംസ് ഓൺലൈൻസില് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇത്ര എം ബി എന്നുണ്ടാവും അപ്പോൾ ഏതാണ് നമുക്ക് അടിപൊളിയായി തോന്നുന്നത് അതെടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക കളിക്കുക ഓരോരുത്തര് ഓരോത്തിന് വേണ്ടി കളിക്കും ചിലവര് എൻ്റർറ്റെൻ ചെയ്യാൻ ചിലവര് പൈസക്ക് വേണ്ടി ചിലവര് അവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പലരീതിയില് ഓൺലൈൻ ഗെയിംസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും